മൃഗങ്ങളെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ് കോഴി കോഴിയെ ബാധിക്കുന്നതാണ് പനി പനി വന്നാൽ കോഴി മുട്ടയിടുന്ന കോഴികളാണെങ്കിൽ അവ മുട്ടയിടൽ നിർത്തും തൂങ്ങി നിൽക്കും പിന്നെ വായീന്നിങ്ങനെ നമുക്ക് ഒരിളാ പോലെ വന്നാണ് ഈ പനിയാണെന്ന് അറിയുന്നത് പിന്നെ നമ്മൾ പിന്നത് പനിക്കുള്ള മരുന്ന് കൊടുക്കും കോഴിപ്പനിക്കുള്ള മരുന്ന് മൃഗാശുപത്രി പോയി മേടിച്ച് നമ്മൾ കൊടുക്കും പിന്നെ അടുത്തത് പശു പശു പിന്നെ സാധാരണ കാണുന്ന ഒരു രോഗമാണ് നമ്മുടെ കുളമ്പ് പനി കുളമ്പ് പനി കുളമ്പ് പനി വന്നാൽ നമ്മുടെ കാ പശുക്കൾ കാല് പിന്നെ താഴെ തറയിൽ തൊടത്തില്ല ആ കുളമ്പിൻ്റെ ആ സൈഡ് മുഴുവൻ നീരും വന്ന് പിന്നെ അത് നീര് വന്ന് എല്ലാം കാല് കുത്താതെ പിന്നെ ആ കുളമ്പ് പനി പിന്നെ പശുക്കൾക്ക് ആ കുളമ്പ് പനി കൊണ്ടും പനീം പിന്നെ പനിയും മൂക്കൊലിപ്പ് പ്രധാനമിതാണ് മൂക്കൊലിപ്പ് മുക്കിങ്ങനെ മൂക്കികൂടേം വായിക്കൂടേം ഇങ്ങനെ നമ്മുടെ ഇളാ പോലെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ തൂക്കവാണ് അതിങ്ങനെ തൂങ്ങി നിൽക്കും പിന്നെ അത് കറവയുള്ള പശുക്കളാണെങ്കിൽ അതിന് പാൽ അങ്ങ് കുറയും പാൽ കുറഞ്ഞ് നമ്മളീ ഈ മരുന്നൊക്കെ മേടിച്ച് കൊടുത്ത് മൃഗഡോക്ടറെ കൊണ്ട് വന്ന് മരുന്നെല്ലാം മേടിച്ച് കൊടുത്താലും ഈ മരുന്നിൻ്റെ ഇതുകൊണ്ട് ഈ പാൽ അങ്ങ് കുറയും പാല് പിന്നെ പിന്നെയുള്ളതാണ് അകിട് വീക്കം അകിട് വീങ്ങി പിന്നെ പിന്നെ കറവ ഇല്ലാത വരും പിന്നെ അകിട് വീക്കം വന്ന് കഴിഞ്ഞാൽ പിന്നെ പാൽ പാൽ അങ്ങ് കുറഞ്ഞ് പോകും പാൽ കുറയുമ്പം പിന്നെ നമ്മൾ അകിട് വീക്കം വന്നാൽ നമ്മൾ പിന്നെ ഐസ് വെക്കും ഐസ് ഐസും വിനാഗിരിയും കൂടെ നമ്മൾ ഈ അകിടെ പിടിപ്പിച്ച് അത് ഒരു ഈ അകിട് വീക്കം വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് ഒരു ഒന്നര ആഴ്ച്ച കൊണ്ടേ അതൊക്കെ മറത്തൊള്ളു പിന്നെ ആ പാൽ എല്ലാം അങ്ങ് കുറഞ്ഞ് പോകും പിന്നെ പിന്നെ കാണുന്നതാണ് പിന്നെ ഒരു ചെള്ള് രോഗമെന്ന് പറയുമ്പം ദേഹം പശുക്കളുടെ ദേഹത്ത് മുഴുവനിങ്ങനെ ചൊറി പോലെ വന്ന് അത് പഴുത്ത് അതിനകത്തൂടെ പുഴു വരെ വരും ആ പശുക്കളുടെ അതും അതും പിന്നെ നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ആ അത് മരുന്നെല്ലാം കൊടുത്ത് വരുമ്പോഴ്ത്തേക്കും അത് അത് പതിയെ അത് കുറയത്തൊള്ളു പിന്നെ നമ്മുടെ സാധാരണ നാട്ട് വൈദ്യം പോലെ ചെയ്യും നമ്മുടെ ആര്യ വേപ്പിലേം പച്ചമഞ്ഞളും ഇതുവെല്ലാം നമ്മൾ അരച്ചിടും പിന്നെ കാലേ ഈ കുളമ്പ് രോഗത്തിന് നമ്മൾ പിന്നെ ഉപ്പ് വെള്ളോം ഉപ്പ് വെള്ളം കോരി നമ്മൾ കാലേലൊഴിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ നാട്ട് വൈദ്യം ചെയ്യുന്നത് ഇങ്ങാ അങ്ങനൊക്കെ